കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളില് സമയം ചെലവഴിക്കുവാൻ ഇന്ന് അടുക്കള വളരെ അധികം വലിയൊരു പങ്കാണ് വഹിക്കുന്നത് കാരണം നമ്മള് ജോലി തെരക്കെല്ലാം കഴിഞ്ഞു വൈകുന്നേരങ്ങളില് വീട്ടില് ഒത്തുകൂടുമ്പോൾ ഭാര്യയും അതുപോലതന്നെ മക്കളുമായിട്ട് ഒത്തുകൂടാൻ പറ്റിയ ഒരു സ്ഥലമാണ് അടുക്കള എന്നു പറയുന്നത് അടുക്കളയിൽ നമ്മള് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തകളും പങ്കു വയ്ക്കാനുള്ളൊരു ഒരു ഇടമാണ് അടുക്കള ഉദാഹരണായിട്ട് പറയാണെങ്കിൽ ഭാര്യമാർ കൂടുതലും ചെലവഴിക്കുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ചെലവഴിക്കുന്നത് അടുക്കളയിലാണ് ഈ സമയങ്ങളിൽ ഭർത്താക്കന്മാർ ടി വി കണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഭാര്യയെ സഹായിക്കുന്നതിലൂടെ അടുക്കളയിൽ ഭാര്യക്ക് ഒരു സഹായവും അതുപോലതന്നെ ആ ഒരു സന്ദർഭങ്ങളിൽ നമ്മുടെ കുടുംബ പരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ചിന്തകളും അതുപോല തന്നെ സ്നേഹപ്രകടനങ്ങളും വർദ്ധിപ്പിക്കുന്നതില് അടുക്കളയ്ക്ക് വളരെ അധികം ഒരു പ്രാധാന്യം ഉണ്ട്